എൻ്റെ ഗ്രാമം അലൈമൺ കുറേ വർഷങ്ങൾക്ക് മുൻപ് മാത്രമേ കടുത്ത ജലക്ഷാമം ഉണ്ടായിട്ടുള്ളൂ ഒരു വർഷം ഓർക്കുന്നില്ല പക്ഷെ അന്ന് ഇതിൽ പിന്നെ ഇത് ടാങ്കർ ലോറിയിലൊക്കെ പിന്നെ വന്ന് വെള്ളം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഡാമുകളൊക്കെ ഉണങ്ങിയിരുന്ന സമയമായിരുന്നു ഒരു പത്ത് വർഷം മുമ്പായിരിക്കും അതിന് മുമ്പോട്ട് വലിയ ഒരു വരൾച്ച പിന്നെ പിന്നെ പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത്രയും ഇപ്പം വരുന്നില്ല അത്രയും വരൾച്ച വരുന്നില്ല ആ പിന്നെ അത് അത് ആ സമയത്തൊക്കെ പിന്നെ ആളുകൾക്ക് കുടിവെള്ളത്തിനൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അത് റേഷൻ ആയിരുന്നു പിന്നെ ലൈൻ വെള്ളം ഒക്കെ കൊടുത്ത് എന്തായാലും ശരി ആളുകൾ ആളുകൾക്ക് വെള്ളം കിട്ടിയിരുന്നു ഗവൺമെൻറ്റ് കൊടുത്തിരുന്നു ആ സമയത്ത് ടാങ്കർലൊക്കെ വന്നിരുന്നു എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും വിതരണം ഒക്കെ ചെയ്തിരിക്കുന്നു നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ മഴ കുറഞ്ഞാണ് വരുന്നത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതായിട്ട് പിന്നെ ഗവൺമെൻറ്റ് സപ്പോർട്ടോടു കൂടി എല്ലാകാര്യങ്ങളും നടക്കുന്നുണ്ട്